ട്രക്കുകളോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു വൈബായിട്ടുള്ള ഒരു സംഭവമാണ് എനക്ക് പേഴ്സണലി അത്ര അറ്റാച്ചള്ള ഒരു സംഭവാണ് ഇതിനോടൊപ്പം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു ഞാൻ ഒരുപാട് ചലഞ്ചുകൾ നേരിടണ്ട ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ചു എനിക്ക് ഫ്രണ്ട്സുകൾ അങ്ങനെ ഇല്ല ഫ്രണ്ട്സുകളൾ ഇല്ലാ എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺടാക്ട്സ് അത്രയും അത്ര ഒരു അത്ര അതിൽ ഡെഡിക്കേറ്റഡ് അല്ല അതിനോട് ഒരു കമിറ്റ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടാവാം കാരണം എനിക്ക് സൗഹൃദത്തിലാണെന്നുണ്ടെങ്കിലും സൗഹൃദമേ ഉള്ളു അത് പ്രണയം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ സുഹൃദത്തിൽ ആൺന്നുണ്ടെങ്കിലും എനിക്ക് അത്രയും അതിൽ ഇങ്ങനെ കമ്മിറ്റഡായിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അതിൽ അത്ര കമിറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾ തന്നെ അവരുമായിട്ട് എനിക്ക് അത്ര കോൺടാക്റ്റിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടു തന്നെ ഈ ട്രക്കുകളോടുള്ള താല്പര്യം പറഞ്ഞാൽ ഒരു ഒരു അഡ്വഞ്ചറായിട്ടും എനിക്ക് നല്ല ഒരു താല്പര്യമുണ്ട് തൊഴിൽ ജീവിതത്തിൽ അത്ര ഞാൻ ഒരു എജ്യൂക്കേഷൽ മേഖലയിലാണ് അതിനോട് അത്ര ബന്ധമില്ല ഒരുമിച്ചു കൊണ്ടു പോവാൻ വലിയ താല്പര്യം ഉണ്ട് ട്രക്കിങ് പറഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടിനെ അതുപോലെ തന്നെ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു സംഭവമാണല്ലോ അതിനോട് വലിയ താല്പര്യമുണ്ട് കുടുംബക്കാർ പറഞ്ഞാൽ പോരൻസും അവർക്കൊന്നും ഇങ്ങനെ ട്രക്കിങ്ങിനോട് വലിയ താല്പര്യമില്ല പക്ഷേ എൻ്റെ ബ്രദേേഴ്സിനാണെന്നുണ്ടെങ്കിൽ കുറച്ചു ഇതിൽ താല്പര്യമുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നമ്മടെ കൊളീഗ്സുകൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ട്രക്കിങ്ങിലും താല്പര്യമുണ്ട് അവർ അതൊരു സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വ്യക്തിപരമായിട്ട് ആ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് എനിക്ക് അതിലൊരു സാറ്റിസ്ഫൈഡ ആയിട്ട് സംഭവം നടക്കുന്നത് ട്രക്കിങ് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നതിലേറെ അത് അനുഭവിക്കുന്നതിലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രക്കിങ്ങെന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ അതൊരു ഫേസിങ്ങ് ഓഫ് എ ചെലഞ്ച് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ വഴി വെട്ടി പോവിക എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ് അതിനുള്ളത് എന്നതാണ് ഞാൻ അതിൽ കാണുന്നത് ട്രക്കിങ്ങിനെ കുറിച്ചു അത്രയൊക്കെ തന്നെ ഉള്ളു അത് നമ്മൾ വാക്കുകളിൽ പറയുന്നത് കൂടാതെ അനുഭവിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്